ഒരവസരം ലഭിച്ചാല് ഇന്ത്യേയിൽ അല്ലെങ്കിൽ നിങ് മറ്റ് സംസ്ഥാനങ്ങളിലും കഥകളി തെയ്യം മാർഗംകളി കുച്ചിപ്പിടി ചാക്ക്യാര്ക്കൂത്ത് പിന്നേ ചവിട്ട് നാടകം തുടങ്ങിയ ഇതൊക്കെ കാണിക്കാനായിട്ടാണ് രാജ്യങ്ങളില് കാണിക്കാനായിട്ടാണ് ഞാനാഗ്രഹിക്കുന്നത് കാരണം അതൊക്കെ കേരളത്തിന്റെ അല്ലെങ്കില് നമ്മുടെ രാജ്യത്തിന്റെ തനതായ കലാരൂപങ്ങളാണ് നമ്മുടെ നാടി നാടിന്റെ എന്താ പറയുക ഒരു ഒര് പ്രത്യേകതര സംസ്കാരത്തിനൊത്തൊരു കലാരൂപങ്ങളാണല്ലോ ഇവയൊക്കെ പിന്നേ എന്താ പറയുക മാർഗം കളിയാണെങ്കിൽ ക്രിസ്ത്യന്സ്സിന്റെ പാരമ്പര്യത്തില് നടക്കുന്നൊരു കളിയാണല്ലോ പിന്നെ കഥകളിയാണെങ്കിലും അടിപൊളി ഒരു പ്രത്യേക തര വേഷമൊക്കെ ഇട്ട് പിന്നെ നല്ലൊരു ഭാവമൊക്കെ കുറെ ഭാവങ്ങളൊക്കെ കൊടുത്ത് കുറെ നേരം ഇരുന്ന് ഉള്ള ഒരു കളിയാണല്ലോ കഥകളി അത് തന്നെ നമ്മുടെ രാ പുറം രാജ്യങ്ങളിലുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർ അങ്ങനത്തെ കലാരൂപങ്ങളൊന്നും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുകയില്ല അതുപോലെ തന്നെ ചവിട്ട് നാടകവും ചാക്ക്യാര്കൂത്തും മോഹിനിയാട്ടം തുടങ്ങിയവയൊക്കെ നമ്മുടെ രാജ്യങ്ങള്ക്കുപരി മറ്റു രാജ്യങ്ങൾലും പ്രചരിക്കണമെന്ന് ഞാന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഒരു ഇതിനേയും ഒക്കെ അത് സൂചിപ്പിക്കുന്നു പിന്നെ പല ഗോത്രകലകളേയും കലകളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവയും മറ്റു രാജ്യങ്ങളിലേക്ക് കാണിയ്ക്കാന് ഞാനാഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു ഗോത്രത്തിന്റെ തനതായ കലാരൂപമാരിക്കുമല്ലോ അത് അപ്പോൾ അവരുടെ ആ ഒരു ഗോത്രത്തിന്റെ സവിശേഷതകളെയും അവരുടെ ആചാരങ്ങളേയും അനുഷ്ഠാനങ്ങളേയുമൊക്കെ മറ്റു രാജ്യക്കാര്ക്കും മൻസ്സിലാക്കാന് അത് സഹായിക്കും പിന്നെ പിന്നെ മോഹിനിയാട്ടം അതുപോല തന്നെയാണ് എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള വേഷമൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങി നല്ല ഭാവങ്ങളൊക്കെ ഇട്ട് നല്ല രീതിക്ക് കളിക്കുന്ന ഒരു കളിയാണ് മോഹിനിയാട്ടം അപ്പം അതും നമ്മുടെ പുറം രാജ്യങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ചാക്ക്യാര്ക്കൂത്തും മാർഗംകളി തുടങ്ങിയവയൊക്കെ പിന്നേ ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു എന്താ പറയുക സംസ്കാരത്തില് പ്രധാന പങ്ക് വഹിക്കുന്ന കലകളാണ് അപ്പം ഇതൊക്കെ മറ്റു രാജ്യങ്ങളിലും പ്രചരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് ഞാന് ഞാന് വിചാരിക്കുന്നത് പിന്നെന്താ കഥകളിയാണെങ്കില്ത്തന്നെ പല വേഷങ്ങളുണ്ട് പച്ച കത്തി കരി തുടങ്ങിയ വേഷങ്ങളുണ്ട് കുറെ ഭാവങ്ങളുണ്ട് അങ്ങനെ ഒക്കെ പല വേഷങ്ങൾ ആയിട്ട് പലര് കളിക്കുന്നതാണല്ലോ കഥകളി അപ്പോൾ അതൊക്കെ മറ്റ് രാജ്യക്കാരേയും ഒരു പക്ഷെ ആകര്ഷിച്ചേക്കാം അവര്ക്കും ഇതൊക്കെ കാണാനായിട്ട് ഒരു പക്ഷെ താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം അപ്പം അവരിതൊക്കെ ഇതൊക്കെ ഒരു കാണുമ്പൊഴ് ഒരു പുതുമയായിട്ടും അവരുടെ രാജ്യങ്ങളിലുമിതൊന്ന് പ്രചരിക്കണമെന്നൊരു ആശയം വരുവാണെങ്കിൽ നമുക്ക് നമ്മളെ സംബദ്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ് അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കുറെ ഒട്ടനവധി കലാരൂപങ്ങളും മറ്റ് രാജ്യങ്ങൾലേക്ക് പോകണമെന്നും അത് നന്നായിട്ട് പ്രചരിക്കണമെന്നുമൊക്കെ ഞാനാഗ്രഹിക്കുന്നുണ്ട് പിന്നേ നമ്മുടെ സംസ്കാരത്തേയും നമ്മുടെ ശൈലിയേയും അതൊക്കെ നന്നായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് സഹായിക്കും പിന്നെ ഒപ്പം നമ്മുടെ കഥകളിക്കാര്ക്കും മറ്റ് കലാരൂപങ്ങള് അഭ്യസിക്കുന്നവര്ക്കൊക്കെ അതൊരു വരുമാനമാര്ഗ്ഗവുമാകും പിന്നെ അവർക്കൊരു എന്താ പറയുക അവര്ക്കൊരൂ അഭിമാനവും ആകും ഒരൂ എല്ലാവരും അറിയുന്നൊരു ഇതുമാകുമല്ലോ അപ്പം എന്തുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ കലാരൂപങ്ങള് മറ്റ് രാജ്യങ്ങളില് മറ്റ് കേ ഇന്ത്യയിലുപരി മറ്റ് രാജ്യങ്ങൾലേക്ക് എത്താന് ഞാ ആഗ്രഹി എത്തണമെ എത്തുന്നതില് എനിക്ക് നല്ല അതിയായ ആഗ്രഹമുണ്ട്